അനിരുദ്ധിനെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെയാണ് കൂടുതലും കേൾക്കാറുള്ളത് അതുപോലെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടാണെങ്കിലും എല്ലാ മുമ്പ് ഇറങ്ങിട്ടുള്ള പാട്ടുകളാണെങ്കിലും അദ്ദേഹം പാടിയ പാട്ടുകൾ എല്ലാം നല്ല ഹിറ്റായിട്ടുള്ള നല്ല മൂവിങ്ങ് ഉള്ള പാട്ടുകളാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബി ജി എം ആണെങ്കിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊറിയോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഭയങ്കര പെർഫെക്റ്റാണ് നമുക്ക് ആ പാട്ടിൽ പിടിച്ച് ഇരുത്തും നമ്മളെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പിക്കുന്ന പോലെയുള്ള പാട്ടുകൾ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നുപറയുന്നത് നമുക്ക് അതിൽ അങ്ങനെ മുഴുകാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ റീസെന്റ്ലി ഇറങ്ങിയ ജയിലെർ എന്ന മൂവിയിലെ ബി ജി എമ്മും സോങ്ങ് ഒക്കെ ആണെങ്കിൽത്തന്നെ നമുക്ക് ആ മൂവിയെക്കാളും വാല്യു ഉള്ളത് സോങ്ങായിട്ട് തോന്നും കാരണം അത്രയും പെർഫെക്ടായിട്ടുള്ള ഒരു സോങ്ങും സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നത് കാണാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല